പത്തനംതിട്ടയിൽ കോട്ടാങ്ക പഞ്ചായത്തിൽ ഒൻപതാം വാർഡിലായിട്ട് ഒൻപതാം വാർഡിലായിട്ട് നിർമ്മലപുരമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ അവിടെ മലയാറ്റൂർ മല പോലെ കറുവള്ളിക്കാട് മലയെന്നു പറയും അവിടെ കുരിശു മല കയറാനായിട്ട്

നോയമ്പ് തുടങ്ങുന്ന കാലഘട്ടം തൊട്ട്

പുതു ഞായറാഴ്ച വരെയും ആൾക്കാരവിടെ വന് വരികയും കുരിശുമല കയറുകയും വിനോദസഞ്ചാരത്തിനായി പോകുകയും അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഒരു മല മല മലയുണ്ട് കല്ലുകൾ കല്ലുകളൊക്കെ നിറഞ്ഞ വിനോദസഞ്ചാരികൾക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു മല ഏറിയായുണ്ട് മലയുണ്ട് മലയും കുന്നുകളും നിറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് ആൾക്കാര് പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതിസുന്ദരമായൊരു മല മല ക കറുവള്ളിക്കാട് മലയാണ് കുരിശ് മല കയറ്റത്തിനായിട്ട് ഉപയോഗിക്കുന്നെ അവിടെ അനേകം ജനങ്ങൾ പല സ്ഥലങ്ങളിലായി വന്നെത്താറുണ്ട് അത് അമ്പത് നോയമ്പ് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ അതായത് ഏപ്രിൽ മെയ് വലിയ നോയമ്പിനോടടുത്തെ ആ സമയം വലിയ നോയമ്പിലാണ് കൂടുതലുമാൾക്കാരവിടെ ഉപയോഗിക്കുന്നത് ഏപ്രിൽ മാസങ്ങളിലാണ് അവിടം കൂടുതലും മനുഷ്യരും ഉപയോഗിക്കാറുള്ളത് ആ സമയങ്ങളിലൊക്കെ മഴയില്ലാത്ത നല്ലൊരന്തരീക്ഷം അതായത് ആൾക്കാർക്ക് നടക്കാനും യാത്ര ചെയ്യാനും പറ്റിയ നല്ലൊരാന്തരീക്ഷമാണ് അവിടെയുള്ളത് അവിടേക്ക് അനേകായിരങ്ങൾ കുരിശ് മലകയറാനായിട്ട് പ്രാർത്ഥനയോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും കൂടി അമ്പത് ദിവസം നോയമ്പ് എടുത്ത് ഉപവാസമെടുത്ത് നോമ്പും എടുത്ത് നോമ്പുകളും നോക്കി ത്യാഗത്തോടു കൂടി നടന്ന് പതിനാല് സ്ഥലം പ്രാർത്ഥനാ മഞ്ജരികൾ ആല ആലപിച്ച് കൊണ്ട് ജനങ്ങൾ പിന്നെ വിവിധ സ്ഥലങ്ങൾ നിന്നും ചങ്ങനാശ്ശേരി രൂപതയിലെ വിവിധ പള്ളികൾ നിന്നും ആൾക്കാരവിടെ എത്തിച്ചേരാറുണ്ട് എത്തിച്ചേരാറുണ്ട് അവിടെ അതി സുന്ദരമായ ഒരു സ്ഥലവുമാണ് അതിസുന്ദരമായ സ്ഥലമാണ് ത്യാഗ ത്യാഗവും പ്രാർത്ഥന നിറഞ്ഞ അന്തരീക്ഷമായതിനാൽ ഒത്തിരി ആൾക്കാരവിടെ വന്ന് കൂടി പ്രാർത്ഥനാ മഞ്ജരികളാലപിച്ചുകൊണ്ട് കുരിശ് മല കയറാറുണ്ട് വിനോദസഞ്ചാരികളും അറിഞ്ഞ് കേട്ട് അവിടേക്ക് വരാറുണ്ട് അതി പരാ പുരാതന നൂറ്റാണ്ടുകൾ മുതൽ നൂറ് വർഷത്തെ പഴക്കമേറിയ ഒരു മലയാണ് അവിടെ അതിൻ്റെ മുകളിൽ നമ്മള്ക്കൊരു കുരിശുമല കുരിശ് ചെറിയൊരു കുരിശ് പള്ളിയുണ്ട് അവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയിലെ പിതാക്കന്മാരും അച്ചന്മാരും ഒക്കെ ആയിട്ട് വന്ന് അനേകമാൾക്കാരോടൊപ്പമായി വന്ന് അതി മനോഹരമായ വിശുദ്ധബലി അർപ്പിക്കുകയും അതി സുന്ദരമായ ഈ ഈ വിനോദസഞ്ചാര കേന്ദ്രമായി കാണാ വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ മത മതത്തിൻ്റെ ഒരു ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ക്രിതി ക്രിസ്തീയ മതത്തിൻ്റയില് അടിസ്ഥാനപരമായ ഒരു നോമ്പിൻ്റെ വലിയ നോയമ്പിൻ്റെ കാലഘട്ടം ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സ് ഒരു സീസൺ അതായത് അമ്പത് നോയമ്പിൻ്റെ സീസണിലേക്കാണ് ജനമെത്തിച്ചേരുന്നത് അവിടെ ആസ്വാദ്യകരമായി പ്രാർത്ഥനാമഞ്ജരികള് അർപ്പിച്ച് ദൈവവും ജനവുമായി നല്ലൊരൈക്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയൊരു ഒരന്തരീക്ഷത്തിലേക്കാണ് ദൈവജനം അവിടെ എത്തിച്ചേരുന്നത് അവിടെയും അതിസുന്ദരമായ ഒരു മലയും പ്രാർത്ഥനയ്ക്കും അനുയോജ്യമായ ഒരു സ്ഥലവുമായിട്ട് മതത്തിൻ്റെ മത മതപരമായ ഒരു കേന്ദ്രമായിട്ടും അത് കാണപ്പെടുന്നു അതിന് അതിന് ദൈവാനുഗ്രായാൽ ഏറെയുള്ളൊരു ഏരിയയായിട്ടാണ് കാണപ്പെടുന്നെ അവിടേക്ക് അനേകായിരങ്ങള് മക്കൾ വന്നുചേർന്ന് വന്നുകയറി പ്രാർത്ഥനാ പ്രാർഥനകളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ നിർവ്വഹിച്ച് കടന്ന് പോകുന്നൊരേറിയയാണ്